എനിക്ക് ഈയെടയായിട്ട് പ്രത്യേകിച്ച് താൽപ്പര്യം തോന്നിയിട്ടുള്ള സമകാലിക സംഭവമെന്ന് പറയുന്നത് കുടുംബശ്രീയിലുള്ള വനിതകൾ അല്ലങ്കിൽ കുടുംബശ്രീയിലുള്ള അമ്മമാര് എല്ലാവരും കൂടി ചേർന്ന് തിരികെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അതായത് ഗവണ്മെൻറ്റ് അങ്ങനൊരു പരിപാടി കൊണ്ട് വന്നതില് വളരെയധികം തിരിച്ച് സ്കൂളിലേക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് വന്നത് ഭയങ്കര എന്താണ് സന്തോഷകരായിട്ട് തോന്നി കാരണം പണി അല്ലങ്കിൽ അവരുടെ കുടുംബം കാര്യങ്ങളിൽ നിന്നെല്ലാം വെട്ടി തിരിച്ച് വീണ്ടും അവര് സ്കൂളിലേക്ക് പോവുക ആ അനുഭവങ്ങളൊക്കെ വീണ്ടും പിന്നെ അയവറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതൊക്കെ ആലോചിക്കുമ്പോൾ അതൊരു നല്ലൊരു നിമിഷമായിരുന്നു എന്ന് തോന്നി കാരണം അവർക്ക് പഠിച്ചവരെ കാണാനും അവര് പോയ സ്കൂളുകളിൽ വീണ്ടും പോകാനുള്ള അവസരം കിട്ടിയത് ഒരുപാട് കാലത്തെ അവരുടെ എന്താ പറയുക സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാ ഒരു നിമിഷത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത് വളരെ നല്ലൊരു അഭി നല്ലഭിപ്രായാണ് എനിക്ക് അതിലൊരു കാരണം അതായത് ഇനി അങ്ങനെ ഉണ്ടാകണം കാരണം അവരൊരിക്കലും ഈ പണി അല്ലങ്കിൽ അവരുടെ ജോലി എന്നതില് ഒതുങ്ങി കൂടേണ്ടവരൊന്നുമല്ല അപ്പോൾ അവരെയും നമ്മളെന്ത് ചെയ്യണം മറ്റുള്ളവരെ പോലെ മുൻ നിരയിലെത്തിക്കാൻ വേണ്ടീട്ട് അല്ലെങ്കിൽ അവരും ശ്രദ്ധിക്കപ്പെടണ്ട വിഭാഗങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടീട്ടുള്ളൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു അത് വളരേയധികം എനിക്കത് ഇഷ്ട്ടപ്പെട്ടു